ഹലോ കാർ കാർ ഡീലർ അല്ലേ ആ മഹീന്ദ്രേൻറെ ഒരു ബൊലേറോ വേണേനു ഉം ബേസ് മോഡലിനെത്ര റേറ്റ് ആ ആ ഫുൾ ഓപ്ഷനോ ആ ഏതൊക്കെ കളർ അവൈലബിൾ ആണ് ആ ഓക്കേ പിന്നെ അതിന് ഫീസും കാര്യങ്ങളും ഏത് എഞ്ചിനാണ് ഓക്കേ ആ ആ ആ ആ ഓക്കേ ഓക്കേ ഡീസൽ ആണ് പെട്രോൾ ആണെങ്കിലും മാറ്റമൊന്നുമില്ലേ ആ എത്ര ആ ആ ഈ ഷോറൂം പ്രൈസ് ആണോ നിങ്ങൾ പറഞ്ഞത് ഓൺ റോഡ് എത്ര ഒന്നര ലക്ഷം കൂടുമല്ലേ പിന്നെ ഇൻഷുറൻസിനൊക്കെ എത്ര കയറുക ഇരുപത് രൂപ അല്ലേ ആ പിന്നെ

ഈ പറഞ്ഞ സാധനം കിട്ടി ഞാനിപ്പം ഫുൾ എമൗണ്ട് അടച്ചാൽ എത്ര ടൈം എടുക്കും മൂന്ന് ടു അഞ്ച് അത്ര ടൈം ഒക്കെ എടുക്കുമോ ആണോ അപ്പം അതിൻ്റെ

ഓ ശരി നിങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് വാട്ട്സാപ്പ് ചെയ്യ് നമുക്ക് ഈ നമ്പർ തന്നെയാണ് ആ ഓക്കേ ശരി